നമ്മുടെ പിന്നെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഒരിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ പരിപാലന കേന്ദ്ര ക അതായത് പരിപാലന കേന്ദ്രങ്ങളും കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ലയായിട്ട് എനിക്ക് തോന്നിയത് സഹകരണ മനോഭാവം ഉണ്ട് പിന്നെ അതേ പോലെ തന്നെ സൗകര്യങ്ങളും സേവനങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ കൂടുതലാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ തന്നെ എന്ത് കാര്യവും നമുക്ക് കോഴിക്കോട് വെച്ച് നടത്താൻ പറ്റുന്ന ഒരു ഫെസിലിറ്റീസ് കണ്ടീഷൻ കൂടുതലാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഉണ്ട് താനും അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് സെന്ററുകൾ ഉണ്ട് ക്ലിനിക്കുകൾ ഉണ്ട് ഫാർമസികൾ ഉണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പോകാം നമ്മൾ കോവിഡ് പോലത്തെ മഹാമാരി ഇപ്പം കണ്ടോ നിപ്പാ ഒരു പ്രാവശ്യം നിപ്പ വന്ന് പോയതാണ് വീണ്ടും നമ്മുടെ കോഴിക്കോട് നിപ്പാ വന്നിട്ടുണ്ട് അപ്പോൾ ആ മഹാമാരി സമയത്തൊക്കെ ആശുപത്രികളും പിന്നെ ഹെൽത്ത് സെന്ററുകളും പിന്നെ അതേ പോലെ തന്നെ കമ്യൂണിറ്റി ഫാർമസി കമ്മ്യൂണിറ്റികൾ ക്ലിനിക്കുകൾ ഒക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും പിന്നെ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചു നല്ല രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അത് അതായത് നമ്മൾ പിന്നെ സാമൂഹ്യദൂരം മാസ്ക് എല്ലാം വെച്ചിട്ടാണ് അന്ന് പ്രവർത്തിച്ചത് പക്ഷെ എന്തൊരു അവസ്ഥ വന്നാലും ഓടിയെത്താനുള്ള ആംബുലൻസ് സർവ്വീസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടി ആൾക്കാർ ഉണ്ടായിരുന്നു പ്രവർത്തന മേഖലയിൽ നഴ്സുമാർ ആയാലും സഹപ്രവർത്തകർ ആയാലും ഡോക്ടർമാർ ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തു